ഇപ്പൊ ഹാൻഡ് ഹാൻഡ് പമ്പിനെ കുറിച്ച് പറയാണെങ്കിൽ നമ്മക്കിപ്പം ഇപ്പോൾ അങ്ങനെ കാണാനായിട്ടില്ല ആദ്യത്തെ കാലത്തൊക്കെ നല്ല രീതിയിൽ ക്യൂ ഒക്കെ നിന്നുട്ടുവേണം നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കുഴൽ കിണറടിക്കും പക്ഷേ നമുക്ക് പൈപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല നമ്മുടെ കൈയ്യ് കൊണ്ടു നമ്മൾ അടിച്ചതിന് ശേഷം മാത്രമേ നമുക്കവിടെ വെള്ളം കിട്ടുള്ളൂ അപ്പോൾ പണ്ട് ക്യൂ ഒക്കെ നിന്ന് കൊടോക്കെ എടുത്തു പോയിട്ട് ക്യൂ ഒക്കെ നിന്നിട്ടുവേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം കുറെ ആൾക്കാർ ഉണ്ടാകും ഈ വെള്ളത്തിന് വെള്ളത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നത്തെ കാലത്ത് വീട്ടിലേക്ക് പൈപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല പിന്നെ വീട്ടിൽ നമ്മൾ ടാപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് എല്ലാവരും കുടത്തിലും ബക്കറ്റിലൊക്കെയാണ് വെള്ളം നിറച്ചുകൊണ്ടു പോയിട്ട് വീട്ടിൽ ഒരു വലിയൊരു ആ പാത്രം ഉണ്ടാകും ഒരു കൂജ പോലത്തെ അതിനകത്തൊക്കെയാണ് നിറച്ച് വെക്ക നമുക്ക് ആവശ്യമുള്ളത് അതിനകത്തുനിന്ന് എടുക്കാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹാൻഡ് പമ്പ് എന്നുപറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ കൈവിട്ട് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം വരും ഒരാൾ ഇവിടെന്ന് അടിക്കുമ്പോൾ മറ്റെയാൾ അപ്പുറത്തിന്ന് വെള്ളം എടുക്കാണ് ചെയ്യേണ്ടത്